സാഹിത്യത്തിലും കലയിലും കവിതയിലും ഒക്കെ ഇഷ്ടംപോലെ മലയാളഭാഷയിൽ ഇഷ്ടം പോലെ സാഹിത്യമുണ്ട് കവിതയുണ്ട് കലാ ആവിഷ്കാരങ്ങളുണ്ട് എല്ലാ മലയാള ഭാഷയിലുണ്ട് നാടകങ്ങൾ സിനിമകൾ എല്ലാമുണ്ട് ഇഷ്ടം പോലുണ്ട് ഞങ്ങൾ ഒക്കെ നാടകം ഒക്കെ കാണുന്നതിന് എനിക്ക് വലിയ ഇഷ്ടമാണ് അത് മലയാളത്തിലുള്ള നാടകം ആകുമ്പം അത് പോയി ഇരുന്ന് കാണുക അത് കേൾക്കുക അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ നല്ലതാണ് നല്ലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നാടകം കാണാൻ പോയിരുന്നു തിരുവല്ലയിൽ വെച്ച് തിരുവല്ലയിലെ പിന്നെ യൂണിയൻ ആർട്സ് ക്ലബ്ബിൻ്റെ അതിൽ ഒരു അംഗത്വം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ നാടകം കാണാൻ പോയിരുന്നു അങ്ങനെ നാടകം പോയി കണ്ടു നാടകം എല്ലാം നല്ല നല്ല നാടകം ആയിരുന്നു മലയാളത്തിലുള്ള നല്ല ഇതായിരുന്നു അതിനകത്ത് എല്ലാ രീതിയിലുള്ള അഭിനേതാക്കളും ഉണ്ടായിരുന്നു എല്ലാവരുടേയും കൂടെ ഉള്ള നല്ല അടിപൊളി സ്പീച്ചും ആവിഷ്കാരങ്ങളൊക്കെ നല്ല ഇതായിരുന്നു അതിൻ്റെ സെറ്റിംഗ്സ് അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളെല്ലാം നല്ല ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ അതായത് അതിൻ്റെ പിന്നീട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വന്നപ്പം അതിനകത്ത് പറയുന്നുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും ഇല്ലാത്തതും ഒക്കെ എല്ലാവരുടേയും അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവർക്കും കൂടുതൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടതാണ് നല്ല സൗണ്ടിൽ ഇഷ്ടം കാര്യങ്ങളെല്ലാമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു മുന്നോട്ടുപോയി പിന്നെ ഒരു കുഴപ്പം ഒന്നുമില്ലാതെ അപ്പം സാഹിത്യത്തിലും കവിതയിലും ഒക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് എല്ലാം ഇറങ്ങി എന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കല്ലേ അതുകൊണ്ട് പ്രയോജനം ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ പിന്നെ സാഹിത്യത്തിലൊക്കെ കൂടുതൽ ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടംപോലെ അവാർഡുകൾ കൊടുക്കുന്നു കവിതയിൽ അവാർഡ് കൊടുക്കുന്നു കലാവിഷ്കാരങ്ങളൊക്കെ പിന്നെ ഇതിനകത്തൊക്കെ നല്ല ഇതായിട്ട് പോകുന്നുണ്ട് മലയാളത്തിലെ ഇതെല്ലാം ഇറങ്ങുന്നതുകൊണ്ടും ആൾക്കാർക്ക് ഇഷ്ടമാണ് എല്ലാം ഒത്തിരി കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പോയി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് സാഹിത്യവും കവിതയും കലാവിഷ്കാരം ഒക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റേജിൽ പോയി ഇരുന്ന് കാണുമ്പോൾ നമുക്ക് അതിൻറേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും ഗുണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം കണ്ടു കാണാതിരിക്കില്ല എല്ലാം കാണുന്നുണ്ട് കണ്ടുകഴിയുമ്പോഴത്തേനും നല്ല നല്ല ഇതായിട്ട് ഓരോന്നൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല നല്ല രസമാണ് അങ്ങനെ നല്ല നല്ല രീതി ഭാഷകളിലും നല്ല രീതിയിലുള്ള കലാവിഷ്കാരങ്ങൾ ഇറങ്ങിയാൽ നമ്മുടെ നാട് തന്നെ പുരോഗമിക്കും കാരണം ഇതൊക്കെ കണ്ടും കേട്ടും വരുമ്പോൾ അതിനകത്തുള്ള ഗുണപാഠങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ ഏ എല്ലാവർക്കും ഇഷ്ടം തോന്നും അങ്ങനെ ഇഷ്ടം തോന്നി കഴിയുമ്പോൾ എല്ലാം നല്ല ഇതായിട്ട് വരും അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുവേം കൂടെ ചെയ്യണം ഇതൊക്കെ കാണാനുള്ള മനസ്സ് കൊടുക്കണം പോയി ഇരുന്ന് കാണുമ്പോഴത്തേന് അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കുകയും അതൊന്നും ചെയ്യാതെ കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിൽ ചിരിച്ചാൽ മതി ഒത്തിരി കയ്യടിച്ചു ചിരിച്ചു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പോലും പറ്റാതെ വരും അപ്പം ഈ സാഹിത്യത്തിൽ കൂടെയും കവിതയിൽ കൂടെയും ഒക്കെ വരുന്ന സംഗതികൾ കേട്ട് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവും കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാക്കി എടുക്കണം അങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് അതെല്ലാം കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇതാണ് ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഉപയോഗിക്കുന്നതൊക്കെ നല്ല ഇതാണ് നല്ല ഭാഷയാണ് നല്ല മലയാള ഭാഷ ആണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്